ഹാ ഞങ്ങളുടെ വീട്ടിലെ പാചക രീതിയനുസരിച്ച് മുളക് ന്യായമായിട്ടും നല്ല എരിവുണ്ടാവും അതുപോലെത്തന്നെ തേങ്ങയില്ലാത്തൊരു കറിയില്ല തേങ്ങയാണ് നമ്മൾ കമ്പല്സറി തേങ്ങാ വെച്ചുള്ള കറികളാണ് കൂടുതലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉപ്പിന്റെ കാര്യത്തിലും ഞങ്ങൾ ശകലം മുന്നിലാണ് നമുക്ക് ഉപ്പുണ്ട് ഉപ്പിനും ഉപ്പും ഇതുപോലെ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് അതുപോലെത്തന്നെ എല്ലാ ദിവസവും രാവിലെ പലഹാരമായിരിക്കും അത് പുട്ടായിരിക്കാം ഇല്ലെങ്കില് ഇടിയപ്പമായിരിക്കാം ഇല്ലെങ്കില് ദോശയായിരിക്കാം അതിന്റോടൊപ്പം തന്നെ ചമ്മന്തിയായിരിക്കും തേങ്ങാചമ്മന്തി അല്ലെങ്കില് സാമ്പാറ് അങ്ങനെ അതാണ് അതുപോലെത്തന്നെ ഉച്ചയ്ക്ക് കമ്പല്സറിയായിട്ടും ചോറ് തന്നെയായിരിക്കും ചോറ് ചോറിന് രണ്ട് മൂന്ന് കൂട്ടം കറി എന്തായാലും കാണും അത് അരച്ച് കറി ഒരെണ്ണം കാണും അത് ഈ തേങ്ങയരച്ചുള്ള ഏതെങ്കിലും ഒരു കറിയുണ്ടാവും അതുറപ്പാണ് അതിന് ശേഷം മീൻകറി മീനാണ് കമ്പല്സറിയായിട്ടും പ്രത്യേകിച്ച് മീന്കറിയോടു കൂടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ആ ഉച്ചയൂൺ ഉണ്ട് ഉണ്ണുമ്പോള് മീന്കറി കാണും ഇറച്ചി അങ്ങനെ വല്ലപ്പോഴെ ഒള്ളു മീന്കറി കമ്പല്സറിയാണ് അതുപോലെത്തന്നെ നമ്മൾ വൈകുന്നേരങ്ങള് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കഞ്ഞിയാണ് പുഞ്ചയരി ചോറിന്റെ കഞ്ഞിയാണ് നമ്മൾ കഴിക്കുന്നത് കഞ്ഞിക്ക് മാങ്ങാച്ചാർ ഉണ്ടാവും അതുപോലെത്തന്നെ ഉച്ചക്കലത്തെ എന്തെങ്കിലും മീന്കറിയുടെ ബാക്കിയും അങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തിന്റെ ദിനചര്യകൾ ആരംഭിക്കുന്നതും അങ്ങനെയാണ് അത് എന്നാ ഭക്ഷണ രീതിയും അങ്ങനെ തന്നെയാണ് അതിനിടയ്ക്ക് ഒരു ചായ കാണും വെളുപ്പിനെ എഴുന്നേറ്റാൽ ഒരു ഒരു കട്ടന്കാപ്പിയുണ്ടാവും അതുപോലെത്തന്നെ ചേരുവകള് കൂടുതലും നമ്മുടെ ഈ മാര്ക്കറ്റില്നിന്ന് വാങ്ങുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചും മസാല പഞ്ചസാരെയെക്കെ ഇച്ചിരി കൂടുതലാണ് ഉപയോഗങ്ങള് പോലും അങ്ങനെയാണ് കാര്യങ്ങൾ പോവുന്നത്